നമസ്കാരം എനിക്ക് എനിക്ക് വിദേശത്ത് ഒരു തൊഴിലവസരം ലഭിച്ചിട്ടുണ്ട് അപ്പോള് എനിക്ക് പാസ്പോർട്ടിലെ വിശദാംശങ്ങളൊക്കെ പുതിയ വിശദാംശങ്ങളുമായി പുതുക്കേണ്ടതുണ്ട് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ രേഖകളാണ് ആവശ്യം എന്തൊക്കെ പ്രോസസ്സ് എന്തൊക്കെ പ്രക്രിയകളിലൂടെ കടന്നുപോകണം എന്നൊക്കെ എനിക്കറിയണം അപ്പോള് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇതിലൊക്കെ നിങ്ങൾ പാസ്പോർട്ട് പുതുക്കിയിട്ടില്ലേ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്തൊക്കെ ഡോക്കുമെൻസ് എന്തൊക്കെ രേഖകളുമായാണ് ഞാൻ അവരെ സമീപിക്കേണ്ടത് ഇത് ഇത് മാറ്റിക്കിട്ടാനായി ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കിട്ടാനായി എത്ര കാലതാമസം എടുക്കും എനിക്ക് വളരെ വേഗത്തില് എത്രയും വേഗം തന്നെ ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ എത്രയും വേഗത്തിൽ സാധിക്കുമോ അത്രയും വേഗത്തിലാണ് എനിക്കിത് കാര്യങ്ങള് മുന്നോട്ട് നീക്കേണ്ടത് എന്താണ് ഞാൻ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എനിക്ക് ഒരു മാർഗ്ഗനിർദ്ദേശം നൽകാൻ നിങ്ങൾക്ക് സാധിക്കുമോ എൻ്റെ എനിക്ക് അവിടെ പോയി തുടർപഠനം നടത്താൻ വേണ്ടിയാണ് തുടർപഠനം അല്ല സോറി തൊഴിൽ തൊഴിൽ അവസരം നോക്കാൻ വേണ്ടിയാണ് അപ്പോൾ പാസ്പോർട്ട് അപ്ഡേറ്റ് ചെയ്താൽ എനിക്ക് അവിടെ എത്രകാലം നിൽക്കാൻ സാധിക്കും അതുകഴിഞ്ഞിങ്ങോട്ടു വന്ന് വീണ്ടും പാസ്പോർട്ട് പുതുക്കേണ്ടി വരുമോ അത് എത്ര കാലത്തിന് ശേഷമായിരിക്കും പുതുക്കേണ്ടി വരിക എന്നിങ്ങനെയുള്ള വിശദാംശങ്ങളെനിക്ക് അറിയണം താങ്കൾക്ക് ഇതിനെപ്പറ്റി അറിയാമെങ്കിൽ എനിക്ക് പറഞ്ഞുതരാമോ എനിക്ക് പിന്നെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ പോലും എന്തൊക്കെ പ്രക്രിയകൾ നടന്ന് എന്തൊക്കെ പ്രക്രിയയിലൂടെ കടന്നുപോയിട്ടാണ് എനിക്ക് വിദേശത്തോട്ടു പോകാൻ സാധിക്കുക എന്നതിനെ കുറിച്ചും ഒരു ധാരണ നിങ്ങളുണ്ടാക്കിത്തരണം